പത്ത് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തിയേഴ് പത്ത് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തൊമ്പത് പന്ത്രണ്ട് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എട്ട് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട്